ഓണ്ലൈനായിട്ടുള്ള നൃത്ത പരിശീലനത്തെ സപ്പോട്ട് ചെയ്യുന്ന ഒരു ആളല്ല ഞാൻ കാരണം ഞാൻ ഒരു നൃത്തം പഠിച്ചിട്ടുള്ള ഒരു ആളാണ് ആ നൃത്തം പഠിച്ചിട്ടുള്ള ആൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരു ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് പഠിക്കുന്ന പഠിക്കുന്ന അത്രയും തന്നെ നമുക്ക് ഓണ്ലൈനായിട്ട് ഉള്ള ക്ലാസ്സുള് കൊണ്ട് ഉപകാരമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നമ്മൾ ഒരു ക്ലാസ്സ് ക്ലാസ്സിൽ ചെന്നാൽ ചെന്നാൽ മുതൽ അവിടത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ പുതിയ്തായിട്ട് കണ്ടു വരുന്ന ഓരോ കാര്യങ്ങൾ ഓരോ മുദ്രകൾ അല്ലെങ്കിൽ ആവര്ത്തിച്ച് ആവര്ത്തിച്ചിട്ടുള്ള പഠിങ്ങൾ ഒന്നും ഈ ഓണ്ലൈനായിട്ട് ഉള്ള കാര്യങ്ങളെ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് പഠിക്കാന് നമുക്ക് കഴിയില്ല കാര്യം കാരണം ഒരുപാട് കുട്ടികളുണ്ടാവും ഈ എന്താണ് ഓണ്ലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഓണ്ലൈനായിട്ട് പടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വച്ചാൽ ഫോണിലൂടെയല്ലെ നമ്മൾ ഇത് പഠിക്കുന്നത് അപ്പം ഒരു കുട്ടിയുടെ പോസ്ച്ചറ് അവർ നിൽക്കുന്ന രീതി ഇരിക്കുന്ന രീതി അല്ലെങ്കിൽ അതിന്റെ വിവിധതരം തലങ്ങളുണ്ട് അരമണ്ഡലം മുഴുമണ്ഡലം ഇങ്ങനെയിള്ള രീതികളിലൊന്നും ഇരിക്കുന്നതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഫോണിൽക്കൂടെ അത് പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായിക്കൊള്ളം എന്നില്ല പിന്നെ ഇ ഫോണിൽ കൂടെയാവുമ്പോൾ അത്ര മാത്രം അതിന് വെക്തത എത്ര എത്രമാത്ര ഉണ്ടാവും എന്ന് നമുക്ക് പറയാന് കഴിയില്ല പിന്നെ നമ്മൾ ഒരു വിദ്യാലയത്തിൽ നൃത്ത വിദ്യാലയത്തിൽ പോയി പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിറ്റിട്ടുണ്ട് പ്രത്യേകിച്ച് അധ്യാപകരും വിദ്യര്ത്ഥികളുമായിട്ടുള്ള ഒരു സമ്പര്ക്കം അവർ അവർ തമ്മിലുള്ള ഒരു എന്താണ് സംസാരം അങ്ങോട്ടു ഇങ്ങോട്ടുമുള്ള സംസാരങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീര്ക്കാനും വളരെ നല്ല രീതിയിൽ പഠിച്ച് പോവാനും പറ്റുക കഴിയുക എന്നും പോയിട്ട് പഠിക്കുന്നത് തന്നെയാണ് ഓണ്ലൈനായിട്ടുള്ള പഠിത്തത്തിന് അത്രയും തന്നെ പ്രാധാന്യം ഞാന് നല്കുന്നില്ല